ജീവിതത്തിൽ എനിക്കേറ്റവും ഇമ്പോർട്ടന്റ് എന്നു പറയുന്നത് ലൈഫിലെല്ലാം ഇമ്പോർന്റാണ് എൻ്റെ ഹസ്ബന്റും കൊച്ചുമാണ് എനിക്കേറ്റവും ഇമ്പോർട്ടന്റ് അവർക്കാണ് ഞാൻ ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്നത് കാരണം അവരില്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒന്നുമല്ല കാരണം ഒരു ശരീരത്തിൽ ഹൃദയമില്ലെങ്കിൽ ആ ശരീരം വെറും ശവമാണ് അതുപോലെതന്നെ അവരില്ലെങ്കിൽ ഞാൻ ഒന്നും അല്ല സുഖത്തിലും സന്തോഷത്തിലും ഒക്കെ അവർ കൂടെ വേണം അവർ അവർക്കാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് വാല്യൂ എന്നു പറയുന്നത് എൻ്റെ കുഞ്ഞും എൻ്റെ ഹസ്ബന്റും ആണ് സൊ അതാണ് അവരില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല ഒന്നും ആവാനും പറ്റില്ല ഒരു ബാക്ക് ബോണ്ട് ആയിട്ട് ഹസ്ൻബന്റ് ഉണ്ട് അടുത്ത് എപ്പോഴും എൻ്റെ കയ്യിൽ തൂങ്ങി എൻ്റെ കുഞ്ഞും ഉണ്ട് ഞാൻ എനിക്ക് സന്തോഷവും ലൈഫിൽ ഏറ്റവും വിലയുള്ള ഒരു കാര്യവും അവർ രണ്ടുപേരുമാണ്